ഞാനെൻറെ കിച്ചണില് കൂടുതലും ഉപയോഗിക്കാറുള്ള പാത്രങ്ങളെന്ന് പറയണത് അലൂമിനിയം പാത്രങ്ങളും സ്റ്റീല് പാത്രങ്ങളൊക്കെയാണ് പിന്നെ ദോശക്കല്ല് ഇരുമ്പിന്റെ ദോശക്കല്ലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് പിന്നെ ചപ്പാത്തിക്ക് ചപ്പാത്തി കല്ലുണ്ട് പിന്നെ ആപ്പത്തിന് ആപ്പക്കലുണ്ട് ഓരോ ഫുഡിനും ഓരോ സ്പെസിഫിക്കായിട്ടുള്ള പാത്രങ്ങളാണ് യൂസ് ചെയ്യുക എന്നാലെ നമുക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുള്ളൂ പിന്നെ നമ്മള് കിച്ചണിലാവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ മസാല പൊടികളിട്ട് വെക്കാനുള്ള പാത്രം ചെറിയ ചെറിയ പാത്രങ്ങള് അത് അതൊക്കെ നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ് ചെയ്യും അതുപോലെ പലതരത്തിലുള്ള നൈഫ് കിച്ചൻ നൈഫ് വെജിറ്റബിൾ കട്ടേഴ്സ് പലതരത്തിലുള്ള നൈഫ് ഉപയോഗിക്കണ മൂലം നമുക്കീ പല പലതരത്തിലുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും പറ്റും പിന്നെ നോൺവെജ്ജ് കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും പിന്നെന്താ കുക്കർ കുക്കർ ഇംപോർട്ടൻ്റാണ് നമുക്ക് അഞ്ച് ലിറ്റർ കുക്കറുണ്ട് രണ്ട് ലിറ്ററുണ്ട് ഒരു ലിറ്ററുണ്ട് അങ്ങനെ കുക്കറ് കുക്കറിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കുക്കറിൽ ഇട്ട് ഒരു മൂന്ന് വിസിലടിച്ച് കഴിഞ്ഞാൽ ഫുഡ് റെഡിയാകും സോ കുക്കറ് നമ്മുടെ നന്നായി ഹെൽപ്പ് ചെയ്യും വേഗം ഫുഡ് വെക്കാൻ ആയിട്ട് പിന്നെ നമ്മള് നിറയെ നിറയെ നിറയെ പേർക്ക് ഫുഡ് വയ്ക്കണ സമയത്ത് അതിനനുസരിച്ചുള്ള വലിയ ചട്ടികളും ഉരുളികളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മള് ഉപയോഗിക്കുക അപ്പോൾ കിച്ചണില് എപ്പോഴും നമുക്ക് കിച്ചണിലാവശ്യമായ സാധനങ്ങളൊക്കെ എപ്പോഴും നിറയെ വാങ്ങി വയ്ക്കണം എന്നാലേ നമുക്ക് വർക്ക് ചെയ്യണ സമയത്ത് കിച്ചണിൽ വർക്ക് ചെയ്യണ സമയത്ത് വളരെ എളുപ്പത്തിൽ പെരുമാറാൻ സാധിക്കുകയുള്ളൂ